ആ ആര് യെസ് സലാല മൊബൈൽസ് ഇതാര് ആ നൗഫില എന്തായി ചൊല്ല് ഇപ്പോൾ എന്താണ് പുതിയ കളക്ഷനിൽ വന്നതിൽ റെഡ്മി പ്രൊ മാക്സ് ഫോർട്ടീൻ പ്രോ പിന്നെ മീൻ്റെയുണ്ട് തേർട്ടീൻ

ഇ എം ഐന്റെനും ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ഈ സിക്സ്റ്റീൻ പ്രൊ എടുക്കുന്നതെങ്കിൽ ഒരു റുപ്യ തരേണ്ടിവരും നമുക്ക് ബാക്കി അറുപതിനായിരം റുപ്യ ഈ ഡൗൺ പേയ്മെന്റ് ആക്കണം ഡൗൺ പേയ്മെൻറ്റിന് മാസാമാസം ഇ എം ഐ അഞ്ചഞ്ചായിരം റുപ്യ കെട്ടിയിട്ട് ടൂ ഇയർ ആകുമ്പോൾ തീർക്കാൻ കഴിയും ഇൻറ്ററസ്റ്റ് ഇല്ല ചെറിയ ഇൻറ്ററസ്റ്റ് ടൂ പെർസെൻറ്റെജ് വരും നിങ്ങൾക്ക് സിക്സ്റ്റീൻ പ്രൊ ഇപ്പം ഒന്ന് പത്തുണ്ട് ഒരു ലക്ഷത്തിപത്തായിരം റുപ്യ അതിതിൽ ഞാൻ നിങ്ങൾക്ക് വാട്ട്സാപ്പിലയാക്കാം ഓക്കെ പിന്നെ ഇപ്പോൾ നല്ല മൂവിങ്ങ് ഉള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ മറ്റേതിൻറെയാണ് വൺ പ്ലസ് അതെല്ലാം നല്ല മൂവിങ്ങ് ഉണ്ട് ഇപ്പോൾ ഓപ്പോ ഭയങ്കരമായി പോകുന്നു ഓപ്പോ നിങ്ങൾക്ക് ഓപ്പോ ആണെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇ എം ഐയിൽ തരാം പേയ്മെന്റ് നിങ്ങൾക്കാകും ഡൗൺ പേയ്മെന്റ് മാസാമാസം മുപ്പത് നാൽപ്പതിനായിരത്തിനുള്ളിൽ നിങ്ങൾ നോക്കിയാൽ ഇനി ക്യാഷിന് ഇപ്പോൾ ഉണ്ട് എന്റെ കൈയിൽ ക്യാഷ് ആണെങ്കിൽ ആ തരാം എക്സ് ആർ അത് മുപ്പത്തെട്ട് വരെ ഉണ്ട് കിട്ടും കൈയിൽ ആ ഓക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയയ്ക്കാം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ വയ്ക്കുന്നോ